ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വായിച്ചാൽ വളരും വായിച്ചില്ലേലും വളരും വായിച്ച് വളർന്നാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞത് പോലെയാണ് വിദ്യാഭ്യാസം ഒരു കാലത്ത് പ്രധാനമായിരുന്നു ഇന്നും പ്രധാനമാണ് പെൺകുട്ടികൾക്ക് പക്ഷേ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിനെക്കാളും കൂടുതൽ കുട്ടികൾ കൂടുതലും ആകർഷിക്കുന്നത് വേറെ കാര്യങ്ങളിലേക്കാണ് അതായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ വരവിനാൽ ഫോണിലാണ് കൂടുതലും കുട്ടികൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തിപ്പം അധികം ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശമായതിനാൽ അധികം കുട്ടികളെ ഫോണിലേക്ക് അഡിക്റ്റ ആയിട്ടില്ല അതിനാൽ തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർ പഠിക്കുകയും ചെയ്യും പിന്നെ സർക്കാർ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ പോലെയുള്ള വഴികൾ വന്ന് കുറേ കോഴ്സുകളുണ്ട് അതായത് അക്കൗണ്ടിങ് തുടങ്ങിയ ഡേറ്റാ എൻട്രി ടാലി അവരതിൽ പഠിപ്പിക്കുക ആറ് മാസത്തെ കോഴസ് ആയിട്ട് പഠിപ്പിക്കുകയും ചെയ്യും അതിൽ പ്ലേസ്മെൻറ്റും കൊടുത്ത് മറ്റ് ഇടങ്ങളിൽ കൊണ്ട് പോയി ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സർക്കാർ പല പദ്ധതികളിലൂടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയിലേക്ക് കൊണ്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പരിധി വരെ വിജയിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ പഞ്ചായ ത്തിൻ്റെ വകയായിട്ടും കുറച്ച് കായികമേളയിലൂടെയും കുറച്ച് കുട്ടികളെ തെരഞ്ഞെടുത്ത് പഠിപ്പിക്കുകയും അതേപോലെ കമ്പാഷം പോലെയുള്ള കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പല പരിപാടികളും ഇവിടെ നടത്തുന്നുണ്ട് അതിലും പല കുട്ടികൾ പോയി വിജയിച്ചിട്ടുമുണ്ട് പകുതി കുട്ടികൾ പകുതി വഴി പോയിട്ട് തിരിച്ച് പിന്നെ വേറെ രീതിയിലേക്ക് അങ് മാറിപ്പോകുകയാണ് പിന്നെ പഠനം എന്ന് പറയുന്നത് പഠനം മാത്രമല്ലല്ലോ ഒരാൾക്ക് കഴിവുള്ളത് ചിലർക്ക് പഠിത്തമായിരിക്കും ചിലർക്ക് കലയായിരിക്കും ചിലർക്ക് കായിക മേളയായിരിക്കും ചിലർക്ക് പാടാനായിരിക്കും ക്ലർക്ക് എഴുതാനായിരിക്കും അങ്ങനെ പല തരത്തിലുള്ള കഴിവുകൾ അതിന് ഇതിൻറെതായി കുട്ടികളെ നമ്മൾ മാതപിതാക്കൾ വേണം അവരുടെ ഇഷ്ടത്തിനുള്ള രീതിയിലേക്ക് വിടാനായിട്ട് പഠിക്കാനും കൂടുതൽ ആഗ്രഹമുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ടും അവരുടെ ഇഷ്ടത്തിനും പഠിപ്പിക്കാൻ എത്ര വേണമെങ്കിലും പഠിപ്പിക്കാനും അയക്കുക സർക്കാർ പരമാവധി കുട്ടികളെ പഠനത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് പല പദ്ധതികളിലും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് എൻട്രൻസ് എഴുതി സർക്കാർ കോളേജുകളിൽ പോകുന്നത് അതൊക്കെ ഇപ്പോൾ ഒരു ശതമാനം കുട്ടികളും നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് ശതമാനം കുട്ടികളും ചേർന്ന് വിജയിക്കുന്നുണ്ട് അതിൽ ഒരു ശതമാനം കുട്ടികളെ ഉള്ളു അല്ലാതെ പൈസ കൊടുത്ത് സീറ്റ് മേടിച്ച് സർക്കാരിൻ്റെ അല്ലാത്ത ചിലവിൽ മാനേജ്മെൻറ് കോട്ടയിൽ പോയി ചേർന്ന് പഠിക്കുന്നത് ഇപ്പം ഒരു പരിധിവരെ എല്ലാ പരിപാടികളും എല്ലാ നാട്ടിലും ഉണ്ട് വിജയിക്കുന്നുമുണ്ട്